പഞ്ചാ ഒരു പഞ്ചയത്തംഗത്തിൻറ്റടുത്തു നിന്നു പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്താ വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിനൊക്കെ എഴുതി കൊടുത്തിരുന്നു അപ്പോൾ വീടിനിങ്ങനെ ജനറലിന് വീടിനങ്ങനെ എഴുതി കൊടുക്കുമ്പം നമുക്ക് പൈസ പാസ്സാകുമായിരുന്നു അപ്പം അങ്ങനെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കിട്ടി ഞങ്ങൾക്ക് മാർക്ക് ഇതു പിന്നവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളത് അതു തടഞ്ഞു വെച്ചു പിന്നെ അത് പാസ്സായി കിട്ടാനൊക്കെ എന്താണ് നിങ്ങളിൽ ഞങ്ങളുടെ പേർ ലിസ്റ്റിലില്ലായിരുന്നു അങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഇതുണ്ടായിരുന്നു പിന്നങ്ങനെ എനിക്ക് മാത്രമല്ല മറ്റ് പല ആളുകൾക്കും അത് ഇത് നേരിടേണ്ടി വന്നു ഇതു ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരു പഞ്ചായത്ത് മെമ്പറുണ്ടായിരുന്നു പുഷ്പ എന്നായിരുന്നു അവരുടെ പേര് അവർ ഈ പഞ്ചായത്തിലെ ഒരുപാടാൾക്കാർക്കിങ്ങനെ വീട് പിന്നെ വീടിന് പാസ്സായിട്ട് അതൊക്കെ തടഞ്ഞു വെക്കുകയും പിന്നതുപോലെ തന്നെ എന്താ പറയുക ഈ കക്കൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എന്താ പറയുക എന്താ അതിന് അർഹതപ്പെട്ട ആളുകളുണ്ടായിരുന്നു അവർ അവഋക്ക് എഴുതി കൊടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അതു കിട്ടാത്ത ആളുകൾ ഇല്ല എന്താ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ പേരിൽ വളരെ അധികം ഞങ്ങൾ പല ആളുകളും ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല ഇതിൽ പെട്ടിട്ടുള്ളു ഞങ്ങൾ ഒരുപാടാളുകൾക്ക് വളരേ അധികം പിന്നെന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെക്കൊരു കാര്യം ഒരു ചെറു ഇത് ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്